എൻ്റെ പ്രദേശമെന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്ന ജില്ല എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ് അപ്പം തൃശ്ശൂർ ജില്ലയാണ് കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്നു പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കലാപരമായിട്ടുള്ള വളർച്ച നടന്നു കൊണ്ടിരിക്കുന്ന സ്ഥലവും തൃശ്ശൂർ ജില്ല തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കഥകളി അതുപോലെതന്നെ കൂടിയാട്ടം ചാക്യാർകൂത്ത് നങ്ങ്യാർക്കൂത്ത് പാട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളുടെ വളർച്ച നടക്കുന്ന വലിയൊരു പ്രദേശം തന്നെയാണ് തൃശൂർ എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട് പാട്ട് മാത്രം പാട്ടും നൃത്തവും ഒക്കെ മുൻപോട്ടു കൊണ്ടുവരുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക അങ്ങനെയുള്ള കുറെ കുറെയേറെ വികസനങ്ങൾ നടക്കുന്ന കലാപരമായിട്ടുള്ള കുറെയേറെ വികസനങ്ങൾ നടക്കുന്ന സ്ഥലം തന്നെയാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് എത്ര എത്രതന്നെയായാലും നമ്മളുടെ പഠനകാര്യങ്ങളിലും ഉപരി തൃശ്ശൂർ ജില്ലയിൽ ഒരുപക്ഷേ കലാ കലാപരമായ കാര്യങ്ങളുടെ വളർച്ച നടക്കുന്നുണ്ട് ഇപ്പോൾ തൃശൂരിൻ്റെ ഏറ്റവും കലാ കലാപരമായിട്ടുള്ള ഒരു വലിയൊരു കാര്യം നടക്കുന്നത് എന്ന് പറയുന്നത് പൂരം തന്നെയാണ് പൂരത്തെ കുടമാറ്റവും അതുപോലെതന്നെ ചെണ്ടമേളവും ഒക്കെ തന്നെ ഏറ്റവും കലാപരമായി ആസ്വദിക്കുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ചെണ്ടമേളം എന്ന് പറയുന്നത് അതുപോലെതന്നെ നമ്മളുടെ ആകാശവാണി ഇപ്പം ഞാൻ പഠിക്കുന്ന വിദ്യാഭ്യാസ സ് സ്ഥാപനത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ആകാശവാണി നമ്മളുടെ വാർത്താവിനിമയം ഒക്കെ നടക്കുന്നത് ആകാശവാണി ഒക്കെ നമ്മൾ നമുക്ക് എത്തിപ്പെടാവുന്ന ദൂരത്ത് തന്നെയാണ് ഇപ്പോൾ ഒരു നമ്മൾക്ക് ഒരു പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹം വന്നാൽ തൊട്ടടുത്ത് തന്നെ അതിനൊരു സ്ഥാപനം കാണും ഒരു നൃത്തം പഠിക്കണമെന്ന് ആഗ്രഹം വന്നാൽ തൊട്ടടുത്ത് തന്നെ അങ്ങനെ ഏറ്റവും ഒരു സ്ഥാപനവും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഏറ്റവും എന്താ പറയുക മുന്നോടിയായിട്ട് നോക്കി കാണുന്ന ഒരു സ്ഥലം തന്നെയാണ് തൃശൂർ ജില്ല എന്ന് പറയുന്നത് ഇല്ലെ